മുടിയുടെയും സംരക്ഷണ മുടിയുടെയും ചർമ്മത്തിൻ്റെയും സംരക്ഷണത്തിന് നാട്ടുവൈദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം അധികം നാട്ടുവൈദ്യങ്ങളല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓരോരോ ക്രീമുകളായിട്ടും അതുപോലെ ഓരോ സ്കിൻ കെയർ ട്രീട്മെൻ്റ് എന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് കടകളിൽ ചെന്ന് അല്ലെങ്കിൽ ബ്യൂട്ടിപാർലറിൽ ചെന്ന് നടത്തുന്ന ചില വിദ്യകളാണിപ്പോൾ എല്ലാവരും പരീക്ഷിക്കുന്നത് എങ്കിൽ പോലും പ്രസവ ശുശ്രുഷ എന്ന പറയുന്നൊരു സമയമുണ്ട് പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്ക് നന്നായിട്ട് അവരുടെ മുടിയും ചർമ്മവുമൊക്കെ സംരക്ഷിക്കേണ്ടത് അതുപോലെ അവരുടെ ചർമം ചർമ്മത്തിൻ്റെ ഒരു സ്കിൻ സ്കിന്നിനു വേണ്ടിയിട്ടുള്ള ഓരോ ട്രീട്മെൻ്റ് ട്രീട്മെൻ്റെ എന്ന് വച്ചാൽ നാട്ടുവൈദ്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഒരു മൂന്ന് മാസം അവർ നല്ല രീതിയിൽ തന്നെ മറ്റേ വൈദ്യരുടെ അടുത്ത് പോയിട്ട് എണ്ണ കുഴമ്പ് അതുപോലെ ചില നാരുകള് അതൊക്കെ വാങ്ങി അവർക്ക് ശരീരത്തിൽ പുരട്ടുകയും ചൂട് വെള്ളത്തിൽ കുളിക്കുകയും അതുപോലുള്ള രീതികളൊക്കെ ചെയ്തു വരുന്നുണ്ട് അത് മുടിയുടെ സംരക്ഷണത്തിന് ആയിട്ടിപ്പോൾ അലോവെറ അലോവെറയുടെ ജെൽ ജെല്ല് കറ്റാർവാഴയുടെ ജെൽ എടുത്തിട്ട് തലയിൽ തേക്കുക അതുപോലെ ചർമ്മത്തിന് വേണ്ടിയത് യൂസ് ചെയ്യുക സ്കിന്ന് മുഖം മുഖക്കുരുവിനും അതിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ റോസ് വാട്ടറോക്കെ കൂടിയിട്ട് ചേർത്തിട്ട് മുഖത്ത് പിടിപ്പിക്കുക അതൊക്കെ ചെയ്ത് വരുന്നുണ്ട് അതുപോലെതന്നെ അതുപോലെ ചെമ്പരത്തി പൂവിൻ്റെ ഇല ചെമ്പരത്തി പൂവിൻ്റെ ഇലയെടുത്ത് കല്ലിലിട്ട് അല്ലെങ്കിൽ കൈ വച്ചൊരച്ച് അതിന്റൊരു അതിന്റൊരു നീരു പിഴിഞ്ഞ് എടുത്ത് അത് തലയിൽ ഉരച്ചു പിടിപ്പി പിടിപ്പിക്കുന്നത് മുടി നല്ല കറുത്ത് വളരാനും അതുപോലെ നീളം കൂടാനുമൊക്കെ നല്ലതാണ് എന്ന് നാട്ടുവൈദ്യര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലര് ഇപ്പോഴും അതുപോലെ ചെയ്യുന്നുണ്ട് അതുപോലെ വേറൊരു പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി അല്ല കഞ്ഞണ്ണി കഞ്ഞണ്ണി എന്ന് പറയുന്നൊരു ഇല വയലിനൊക്കെ നമുക്ക് കിട്ടുക അത് അത് വെള്ള വെ വെളിച്ചെണ്ണയിൽ ഇട്ട് ചൂടാക്കി ആ എണ്ണ തലയിൽ തേക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകേട്ടിട്ടുണ്ട് അതുപോലെ ചർമ്മത്തിന് വേണ്ടിയിട്ടും അതുപോലെ തലയ്ക്കു വേണ്ടി തലയിലെ ഓരോ അല്ല ഓരോ മരുന്നുകൾ ഉണ്ടാക്കാൻ കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെടിയുണ്ട് അതിങ്ങനെ വയലുകളിലും അതുപോലെ നട നടപ്പാതയിലൊക്കെ ഒരുപാട് കാണാം അതും അതിൻ്റെ വേരും അതിൻ്റെ വേരൊക്കെ നല്ലൊരു ഔഷധഗുണമുള്ള ഒരു വേരു അതിൻ്റെ വേരുകളാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലൊക്കെ ചില നാട്ട് വൈദ്യങ്ങൾ ഇന്നും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ട്രീട്മെന്റുകൾക്കാണ് എല്ലാവരും ഇപ്പം പോയി കൊണ്ടിരിക്കുന്നത്